നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറെ സ്വാധീനിച്ച വ്യക്തി ആരാണ് ആ വ്യക്തി നിങ്ങളെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തി എൻ്റെ ഉപ്പയാണ് എൻറ്റുപ്പ അത്രയും കഷ്ടപ്പെട്ടിട്ടെന്നെ വളർത്തി വലുതാക്കി പത്തിരുപത്തി നാല് വയസ്സുവരെ എന്നെ പോറ്റി വളർത്തി വലുതാക്കി എൻറ്റുപ്പയാണ് ഉപ്പ എത്ര നമ്മളെത്ര ഇതു സമ്മാനങ്ങൾ കൊടുത്താലും എത്ര പണം കൊടുത്തു കഴിഞ്ഞാലൊന്നും അതിനു പകരമാവൂല ഉപ്പ എന്ന ഇത്രയും കാലം ചെറുത് മുതൽ സി ബി എ സി ചേർത്ത് പഠിപ്പിച്ച് ഇത്ര വലുതാക്കി ഉപ്പാക്കെത്ര കടപ്പെട്ടാലും തീരൂല പിന്നെ എനിക്ക് ഉപ്പയെ ഭയങ്കരം ഇഷ്ടമാണ് ഉപ്പയില്ലാത്തൊരു ജീവിതം എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല എത്രയോ പേരുകളുടെ പേരുടെ ഉപ്പയൊക്കെ മരണപ്പെട്ട് ഉപ്പയൊന്നു ഇല്ലാത്തൊരവസ്ഥ നമ്മളുടെ കൺമുൻപിൽ തന്നെ വന്നിട്ടുണ്ട് ഓരോരാക്ക് ഉപ്പയും ഉമ്മയൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല ഉപ്പാക്ക് മരണം വരെ നല്ലത് മാത്രം കൊടുക്കാൻ വേണ്ടീട്ട് പ്രാർത്ഥിക്കുന്നു ഉപ്പാ അത്രയും കഷ്ടപ്പെട്ട നമുക്കൊരു വിദ്യാഭ്യാസം തന്ന് നമ്മളെ കല്യാണം കഴിച്ച് വിട്ട് ഉപ്പ ഉപ്പാൻ്റെ ജീവിതം മറന്നിട്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ച് ഉപ്പാ അങ്ങനെയാണ് മക മക്കൾ കഴിഞ്ഞിട്ടേ മാതാപിതാക്കൾക്ക് എന്തുള്ളൂ ഉപ്പ കഴിച്ചിട്ടില്ലെങ്കിലും നമ്മളെ കഴിപ്പിക്കും നമുക്ക് ഡ്രസ്സ് വാങ്ങിത്തരും ബുക്സ് വാങ്ങിത്തരും ഉപ്പ ഒരു കംപ്ലെയിൻറ്റും പറയില്ല നേരെ മറിച്ച് നമ്മളാണെങ്കിൽ നമ്മൾ പല കംപ്ലെയിൻറ്റ്സും പറയും ഉപ്പ ഒരു ഒന്ന് കലമ്പോ അടിക്കോ ഒന്നും ചെയ്യത്തില്ല ഉപ്പാ അങ്ങനെ വളർത്തിയതാന്ന് മക്കളെ ഒരടിക്കാനോ പിടിക്കാനോ ഒന്നിനും നിൽക്കാണ്ട് വളർത്തിയ മക്കളാണ് അതുകൊണ്ട് ഉപ്പാനോട് എത്ര പറഞ്ഞാലും തീരൂല നമുക്ക് നമ്മളെയൊക്കെ ലോകംന്ന് പറഞ്ഞാൽ നമ്മളുടെ മാതാപിതാക്കളാണ് ഉപ്പാനെ വേദനിപ്പിക്കാതെ മുന്നോട്ടു പോകുക അതാണ് എൻ്റെ ആഗ്രഹം ഉപ്പാന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സ്വർഗ്ഗമാണ് പിന്നെ നമുക്ക് നാല് മക്കളെ ഉപ്പ വളർത്തിയത് കണ്ണിലെണ്ണയിട്ട് നോക്കി അങ്ങനെയൊക്കെയാണ്